കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ ഇന്ത്യയിൽ ഉയർന്നു വന്നിരിക്കുന്ന ചില ജോലികളും ട്രോളുകളൊക്കെയാണ് യൂട്യൂബർ കണ്ടെൻ്റ് ക്രീയേറ്റീവ്സ് സഞ്ചാരികൾ ഹാസ്യനടന്മാർ തുടങ്ങിയവയൊക്കെ ഇതിലൊക്കെ കൂടുതലായും പങ്കെടുക്കുന്നത് ചെറുപ്പക്കാരാണ് ഈ ജോലികളിലെല്ലാം അദ്ധ്വാനം കഠിനമായ അദ്ധ്വാനം കുറവാണ് പക്ഷെ പണം കിട്ടുകയും ചെയ്യും നമ്മുടെ ജോലിഭാരം കുറവുള്ളതും പണം കൂടുതൽ ലഭിക്കുന്നതുമായ ജോലികൾ ചെയ്യാനാണ് നമ്മുടെ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് താൽപ്പര്യം ഈ യൂട്യൂബേർസൊക്കെയാണെങ്കിലും കുടുതലും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് അതിന് ഓരോ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കി യൂട്യൂബിലിട്ട് വയറൽ അക്കാനൊക്കെ വയറലായി പൈസ ഉണ്ടാക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത് അതേപോലെ കണ്ടെൻ്റ് ക്രീയേറ്റീവ്സ് ഓരോ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നല്ലതും ചീത്തതുമായ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്ന അവതരിപ്പിക്കുന്നത് അവരാണ് പിന്നെ സഞ്ചാരികളാണെങ്കിലും ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതും അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടും സന്തോഷങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ ഈ സഞ്ചാരികൾക്ക് സാധിക്കുന്നുണ്ട് അവരെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് എത്തിക്കാൻവേണ്ടി അവർ പല യാത്രകളിലും ചെയ്ത് അവരെ ഇഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കാനും അത് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഹാസ്യ നടന്മാരെന്നു പറഞ്ഞാൽ നമ്മളെത്ര വിഷമമായിട്ട് ഇരിക്കുകയാണെങ്കിലും ഹാസ്യം കേട്ട് നമ്മളെ മറ്റൊരാൾക്ക് ചിരിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അവരൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് ചിരിപ്പിച്ച് ജീവിക്കുകയാണ് ഇതിനൊക്കെ കഠിനമായൊരു അദ്ധ്വാനം അവരിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ജോലി ചെയ്യുന്നതിന് എല്ലാവർക്കും സന്തോഷവുമാണ് ഉള്ളത്